കോഴി വളർത്താനായിട്ടു നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല നല്ല ആരോഗ്യമുള്ള പൂവൻ കോഴിയിൽ നിന്നും പിടക്കോഴിയിൽ നിന്നൊക്കെ വേണം പൂവൻ കോഴിയുള്ളിടത്തും പിടക്കോഴി നല്ല പൂവൻ കോഴിയായിരിക്കണം എപ്പോഴും നന്നാ നന്നായിട്ടു മുട്ട തരുന്ന നല്ല ആരോഗ്യമുള്ള കോഴിയിൽ നിന്നു വേണം മുട്ട വാങ്ങി അടവെച്ചു വിരിയിക്കാൻ ആയിട്ട് അങ്ങനെയുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആയിരിക്കും നന്നായിട്ടു നല്ല പെട്ടെന്നു നന്നാ ആരോഗ്യത്തോടെ വളർന്നുവരുന്നത് നല്ലതായിട്ടു നമുക്ക് ഫലം തരുന്നതും നന്നായിട്ട് മുട്ടയിടുന്നതും പിന്നെ കുഞ്ഞു ചെറിയ ചെറിയ ജീവി എന്നുവെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങളെ ചെറിയ മൃഗങ്ങളെ കുഞ്ഞുങ്ങളെ കോഴിയുടെ തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ആയിട്ട് അടച്ചുറപ്പുള്ള കൂടുകളുണ്ടാക്കി സൂക്ഷിക്കണം അടച്ചു ഉറ പൂട്ടിയൊക്കെ ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഈ കീരി പാമ്പ് അല്ലെങ്കിൽ പട്ടി ഇതൊക്കെവന്നു പൂച്ച ഇതൊക്കെ വന്നു അതിൻ്റെ ഭക്ഷണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാദ്ധ്യതയുണ്ട് അതുകൊണ്ട് അതുങ്ങളെ എപ്പോഴും നല്ല കെയർ കൊടുത്ത് വെട്ടവും വെളിച്ചവുമൊക്കെ ആവശ്യത്തിനു കൊടുത്തു വെള്ളവും തീറ്റിയും ഒക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ പാത്രങ്ങളൊക്കെ നന്നായി ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടുമൂന്നു നേരം ഭക്ഷണം കൊടുക്കണം മാറിമാറി വെള്ളവും ഒക്കെ മാറ്റിവെച്ചു അങ്ങനെയൊക്കെ ചെയ്തു പരിപാലിച്ചെടുത്താലേ അതിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാത്തതുള്ളൂ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ വളർത്തിയാൽ അതുങ്ങൾ പെട്ടെന്നു ചത്തുപോകുകയും ചെറിയ ഒരുകാര്യം മതി പനിവന്നു ചത്തുപോകുകയും ചെയ്യും പിന്നെ നമ്മളും മുടക്കിയ പൈസ നഷ്ടപ്പെടുകയും അങ്ങനെ നമുക്ക് നിരാശ ഉണ്ടാകുകയൊക്കെ ചെയ്യും അതുകൊണ്ടു കോഴിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചു പരിലാളനം അല്ലെങ്കിൽ പരി നമ്മൾ അതുങ്ങളെ അതുപോലെ പരിപാലിക്കണം എങ്കിൽമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്കു കിട്ടുകയുള്ളു